അമൃതയാണോ ആശാ വർക്കറാണേ ഇപ്പം എന്തെങ്കിലും പിന്നെ ഹെൽത്തിനെന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ

എത്ര ദിവസം ഉണ്ടായിരുന്നു കൊറോണ വന്നിട്ട് പെട്ടെന്ന് മാറിയായിരുന്നോ അതോ കുറെ ദിവസം ഉണ്ടായിരുന്നോ ആണോ വീട്ടിലാർക്കെങ്കിലും ഉണ്ടായിരുന്നോ ആ ഹസ്ബെൻനൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പം ഒന്നും ഇല്ലല്ലോ ആ അതിപ്പം കൊറോണ കഴിഞ്ഞിട്ട് ഇൻജഷൻ വച്ചവർക്കും കൊറോണ വന്നവർക്കൊക്കെ ഇപ്പം ശ്വാസംമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക പിന്നെ ജലദോഷം കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ ആണല്ലേ മക്കൾക്കോ അങ്ങനെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും വന്നായിരുന്നോ മക്കൾക്കെങ്ങാനും വന്നിട്ടുണ്ടായിരുന്നോ ആ ആ ഇല്ലല്ലേ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ബുദ്ധി ആണല്ലേ ഉം ഹും എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് വിളിച്ചറിയിക്കണം കേട്ടോ നമുക്കൊന്നുംകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം നമ്മൾ കാരണം ഇനി വേറെ ആർക്കെങ്കിലും വരേണ്ടല്ലോ ഒന്നു ശ്രദ്ധിച്ച് നല്ല ഇപ്പോൾ എല്ലാവർക്കും പിന്നെയും എന്തൊക്കെയോ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പം നമുക്കെല്ലാവരെയും ഒന്ന് ഈ വിളിച്ച് അന്വേഷിക്കണം ആ അതെ ആ ഇപ്പോൾ കിതപ്പ് കാര്യങ്ങളൊക്കെ ശ്വാസം മുട്ടൽ കാര്യങ്ങളൊക്കെ എല്ലാവർക്കുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വാക്ക്സിന്റെ പ്രശ്നമാണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പം നമ്മളോട് എല്ലാവരെയും ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉം അതുകൊണ്ടാണ് വിളിച്ചുനോക്കിയത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്നു കോണ്ടാക്ട് ചെയ്യണം കേട്ടോ നമ്മളെയോ അതോ അടുത്തുള്ള ഹെൽത്ത് സെൻററില്ളള ആരെയെങ്കിലും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ വീട്ടിൽ വന്നിട്ടുവേണേൽ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്താം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വിളിക്കണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മാത്രമല്ല വീട്ടിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണേ ഉം എന്നാൽ ശരി കേട്ടോ